വ്യത്യസ്ത ഭാഷകളിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നാൾ തമിഴ്നാട്ടിലായിരുന്നു തക്കല രൂപതയിൽ അപ്പം അ വന്നപ്പോൾ അവിടെ മലയാളമല്ല പാട്ട് അവിടെ എല്ലാം തമിഴാണ് അപ്പം തമിഴ് അവർ ഞങ്ങളെ പഠിപ്പിച്ചു അവിടെ ഒരു പട്ടത്തിന് പാടാനായിട്ട് എനിക്ക് അവസരം കിട്ടി അതുപോലെ തന്നെ കൺവെൻഷന് പാടനായിട്ട് അവസരം കിട്ടി അപ്പം അതെല്ലാം ഞാൻ മലയാളത്തിൽ എഴുതിയിട്ട് തമിഴിൽ പാടും തമിഴ് ഭാഷ നമുക്ക് അധികം കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അപ്പം അതിന് അനുസരിച്ചു അവരോട് കൂടെ ചേർന്ന് ആ ശൈലി അനുസരിച്ചവട് അവർ പാടുന്ന പോലെ തന്നെ എനിക്ക് പാടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ സംഗീതാണ് അത് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു താലന്ത് ആണ് കാരണച്ചാ എൻ്റെ ചേച്ചിമാരും അതു പോലെ തന്നെ അപ്പച്ചനും വീട്ടുകാരെല്ലാം ഒരു വിധം പാടുന്നവരാണ് അപ്പം ഞാൻ എപ്പോഴും തെരെഞ്ഞെടുക്കുക കുറച്ചും കൂടെ സെമിക്ലാസ്സിക്കൽ ആയിട്ടുള്ള പാട്ടുകളാണ് എനിക്ക് ഇഷ്ടം അപ്പം അത് ഞാൻ ആ സ്വരങ്ങളെല്ലാം ശരിക്ക് അത് വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പാടുകയുള്ളു അല്ലാതെ എനിക്ക് ഏച്ച് കെട്ടുന്നത് ഇഷ്ടമല്ല അപ്പം ശരിക്ക് എനിക്ക് അതറിയാവുന്നത് മാത്രമാണങ്കിൽ ഞാൻ അത് പാടും അങ്ങനെയാണ് ഞാൻ ഇത് സെലക്റ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ചു എനിക്ക് ഇഷ്ടം ഇതുപോലെ തന്നെ ശാസ്ത്രീയ സംഗീതം ആ ശാസ്ത്രീയ സംഗീതത്തിൽ സെമി ക്ലാസിക്കൽ പാട്ടുകളാണ് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് അത് പാടാനാണ് കൂടുതൽ ഇഷ്ടം മറ്റേത് പാടുകയില്ലെന്ന് ഞാൻ പറയുകയല്ല അതും പാടും അതുകൊണ്ട് എനിക്ക് ഈ പാട്ടിനോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് എനിക്ക് ഓരോ ഭാഷകളിലും പാടുന്നത് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ അത് സ്വീകരിക്കാനും പാടാനായിട്ടും ഞാൻ എപ്പോഴും ആഗ്രഹിക്കും പിന്നെ ഹിന്ദിപ്പാട്ടുകൾ അത് കുറച്ചൊക്കെ നമ്മൾക്ക് ആദ്യകാലങ്ങളിൽ മഠത്തിൽ നിന്ന് വരുന്നതിന് മുമ്പൊക്കെ ആണെ ഹിന്ദിപ്പാട്ടൊക്കെ ഇച്ചിരി പാടുമായിരുന്നു മഠത്തിന് വന്നതിന് ശേഷം ഞാൻ കൂടുതലായിട്ട് പാടിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ തമിഴ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൊയറുണ്ട് സിസ്റ്റേഴ്സിൻ്റെ കൊയറ് രൂപതയുടെ ഒരു കൊയറ് അതിലൊക്ക അംഗങ്ങളായിരുന്നപ്പഴ് സെമി ക്ലാസ്സിക്കൽ ആയിട്ടുള്ള പാട്ടുകൾ ഞങ്ങൾ ഓരോ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ആ പാട്ടിലൂടെ ഞാൻ എപ്പോഴും